ഞങ്ങളെ വീട്ടിൽ എല്ലാവർക്കും ചായ ഇഷ്ടമാണ് നല്ല ഇഷ്ടമാണ് ചായ കുടിച്ചാൽ അന്നത്തെ ദിവസം ഒരു ഷ് ഉൻമേഷവും ഉഷാറുമൊക്കെ ഉണ്ടാവുകയുള്ളു രാവിലത്തെ ആ ഒരു രാവിലെ കട്ടഞ്ചായാട്ടോഷ്ടം ആ കട്ടനട് കിട്ടിയെങ്കിൽ നമുക്ക് ഒരു പിന്നീടുള്ള പണിക്കൊക്കെ ഒരു ഉന്മേഷം കിട്ടണമെന്നുണ്ടെങ്കിൽ അതങ്ങട് കിട്ടണം വീട്ടിൽ കട്ടൻ ഉണ്ടാക്കും പാൽ പകർന്നു കൊണ്ടുള്ള ചായ ഉണ്ടാക്കും കോഫി ഉണ്ടാക്കും പിന്നെ രാവില അധികം കട്ടനായിക്കാരം വൈകുന്നേരം പാൽ ഒഴിച്ചു കൊണ്ടുള്ള പാൽ ചായ ആക്കി ഉണ്ടാക്കും പിന്നെ ചിലപ്പം കോഫി അങ്ങനെ മാറ്റി അങ്ങനെ ഉണ്ടാക്കും ഇന്ന് ഇപ്പം പാൽ ചായ വച്ചെങ്കിൽ നാളെ കോഫി ആയിട്ടങ്ങനെ ഉണ്ടാക്കും പിന്നെ കട്ടന് കട്ടന് ഞാൻ ഉണ്ടാക്കൽ വെള്ളം നല്ലോണം തിളച്ചിട്ട് ചായപ്പൊടി കൊണ്ടിടും ചായപ്പൊടി ഇട്ടിട്ട് ഒന്ന് തിളച്ചിട്ട് പിന്നെ ഓഫാക്കും എന്നിട്ട് പിന്നെ പഞ്ചസാര നല്ല പാകത്തിന് പഞ്ചസാര ഇട്ട് ആ കുറഞ്ഞൊരു ചൂടൊന്ന് അങ്ങോട്ട് ആറിയാൽ പിന്നെ അത് ഇളം ചൂടിലങ്ങോട്ട് കുടിച്ചു അതിൻ്റെ ഒരു സുഖം വേറെയാണ് പിന്നെ വൈകുന്നേരം പാൽ ചായ ആവുമ്പോൾ നമ്മൾ ഇതു പോലെ പാൽ പാലിനാകുമ്പോൾ അത്യാവശ്യം കുറച്ച് നല്ല ഇതിൻ്റെ ഒരു ഇരട്ടി പൊടിയും കൂടി ഇട്ടിട്ട് ആദ്യത്തെ കട്ടനിലേക്ക് ഇരട്ടി പൊടി ഇട്ടിട്ട് പിന്നെ തിളച്ചതിന് ശേഷം പാലൊക്കെ ഒഴിച്ച് പഞ്ചസാര ഇട്ടങ്ങട് അങ്ങനെ പാൽ ചായ അത് വൈകുന്നേരം ഒക്കെ ഉണ്ടാക്കും കോഫി എന്ന് പറഞ്ഞാൽ പിന്നെ ആദ്യം കോഫിയുണ്ടാക്കൽ ആദ്യം പാൽ തിളച്ചതിന് ശേഷം കോഫീ പൗഡർ ഇടലാണ് ആ ഇട്ട് പിന്നെ പഞ്ചസാര ഇട്ടാല് കോഫിയും ഇതിലൊക്കെ നല്ല അടിപൊളി ഞങ്ങൾക്ക് ഞങ്ങളെ വീട്ടിൽ ഇഷ്ടം കട്ടനാണ് കേട്ടോ കട്ടൻ വേണം അന്ന് രാവിലെ തന്നെ കട്ടൻ കിട്ടിയെങ്കിലെ ഒരു സുഖമുള്ളു